ഹായ് ഹലോ ഞാനാദ്യായിട്ട് ഓൺ ലൈൻ പർച്ചേസ് നടത്തിയതിതുപോലെ തന്നൊരു വാച്ചായിരുന്നു അഡിഡാസിൻ്റെയായിരുന്നു അതിന് പതിനയ്യായിരത്തിന് സംതിങ്ങ് രൂപയൊണ്ടായിരുന്നു അതെനിക്ക് ഒഫറിന് അയ്യായിരം രൂപക്കാണ് കിട്ടിയത് വാച്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പെർഫക്റ്റാണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റാണ് നമുക്ക് ഒത്തിരി അങ്ങനെ വെയ്റ്റായിട്ട് തോന്നത്തൊന്നും ഇല്ലായിരുന്നു അതുപോലെ നമുക്കീ കയ്യിലിട്ടാലും പ്രത്യേകിച്ചങ്ങനെ വിയർപ്പടിച്ചിട്ടങ്ങനെ ഒന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ വെയിലത്തിറങ്ങിയാൽ ഞാൻ പൊട്ടി തെറിക്കും അങ്ങനൊരു പേടിയും ഇല്ലായിരുന്നു ആദ്യമുള്ളവരൊക്കെ പറയും ഇങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പറയുമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടങ്ങനെ പക്ഷേ എനിക്കീ പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഇന്നു വരെ ഉണ്ടായിട്ടില്ലിപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് കേടായിട്ടില്ലിതുവരേക്കും ഇപ്പം വാങ്ങിച്ചിട്ട് രണ്ടു മൂന്നു വർഷമായിട്ടുണ്ട് അപ്പം അത്രയും നാളുമായിട്ടിതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇതിൻ്റെ സ്ട്രാപ്പാണെങ്കിലും വെരി നയ്സ് ആൻഡ് ഗുഡ്